വിജയദശമി നാളുകളില് പാലക്കാട് ജില്ലയില് കൊടുന്തുരപ്പള്ളി ഗ്രാമത്തില് ആഘോഷിക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ നല്ല പരിപാടി മൂന്നു ദിവസത്തെ പരിപാടിയാണ് സർവ്വകലാകാരന്മാരും ഉണ്ട് അതിപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ഒരു പഞ്ചായത്ത് ഉത്സവം പോലെ അത് നടത്തണൂണ്ട് സ്ത്രീകൾ പോലും ആ സാംസ്കാരിക ഉത്സവത്തിന് വളരെയധികം ആർത്തു ഉല്ലസിക്കുന്ന ഒരു ഉത്സവമാണ് അതിലുപരി അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വളരെയധികം ഉത്സാഹത്തോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് കൊടുന്തുരപ്പള്ളി ഗ്രാമത്തിലെ ഈ മൂന്ന് ദിവസത്തെ ഈ പരിപാടി അതുപോലെതന്നെയാണ് നെന്മാറ ഒല്ലെങ്കി വേല ആണെങ്കിലും ശരി കൽപ്പാത്തി രഥോത്സവം ആണെങ്കിലും ഈ എല്ലാറ്റിലും അതാത് രീതിയിലുള്ള നല്ല ആഘോഷങ്ങളാണ് പിന്നൊന്നുള്ളത് ഈ പല്ലഞ്ചാത്തന്നൂർ നടത്തുന്ന പള്ളിപ്പെരുന്നാൾ ആണ് അതും മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അതിന് തമിഴ്നാട്ടിൽ നിന്ന് പോലും യാതൊരുവിധ മത മതത്തിന്റെ ചട്ട കൂടുകളും ഇല്ലാതെ അത് ഗംഭീരമായിട്ടാഘോഷിക്കുന്നുണ്ട് അതിന് പ്രാദേശികമായിട്ട് പറയാണെങ്കിൽ അത് ഹിന്ദുക്കളും മുസ്ലീങ്ങളും ഒരുമിച്ച് നടത്തുന്ന അല്ലെങ്കിൽ വളരെയധികം ഇഴുകി ചേർന്ന് നടത്തുന്ന ഒരു വലിയ പെരുന്നാളാണ്